ഇപ്പോൾ നമ്മുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഫ്രെസ്റ്റേഷനൊക്കെ നമ്മുക്ക് ഒഴിവാക്കാൻ വേണ്ടീട്ട് നമക്ക് ഈ അതായത് ഗെയിമിങ്ങൊക്കെ നമ്മുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഓൺലൈൻ ഗെയിമിനേക്കാട്ടും ഒക്കെ നല്ലത് നമുക്ക് സാധാരണ നമ്മടെ നാട്ടിൻപുറത്തുള്ള കളികളൊക്കെയാണ് കുറച്ചുംകൂടി നല്ലത് അതായത് ഇപ്പോൾ ഫുട്ബോള് കളിക്കുക ക്രിക്കറ്റ് കളിക്കാ വോളിബോള് അങ്ങനത്തെ കളികളൊക്കെ നമ്മള് നാട്ടിൻപുറത്ത് ഇഷ്ടം പോലെ കളിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നല്ല രീതിയില് കളിക്കുവാണെങ്കില് നമുക്ക് ആ സമയങ്ങളിൽ വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അനുഭവിക്കേണ്ട ഒരു ആവ ആവശ്യൊന്നൂല്ലാ ഇപ്പോ നാട്ടിൻപുറത്ത് കളിക്കുന്ന പലരീതിയിലുള്ള കളികളുണ്ട് ഇപ്പം അതായത് ഫുട്ബോളൊക്കെ കളിക്കാന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ നമക്ക് ടെറഫിലും കളിക്കാം അല്ലാണ്ട് ഇപ്പം ഒരു മട് ഫുട്ബോള് കാര്യങ്ങളൊക്കെ കളിക്കുന്ന ആൾക്കാര്ണ്ട് അപ്പം അവിടെയൊക്കെ പോയിട്ട് നമ്മള് കളിക്കുവാണെങ്കില് നല്ല രീതിയിലുള്ള ഒരു മൈൻഡ് ഫ്രീയായിട്ട് നമ്മുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ നമ്മുക്ക് ചെയ്യാൻ പറ്റണ ഒന്ന്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പലരീതിയിലുള്ള കളികള് കളിക്കും അതായത് നമുക്ക് ശരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളെ താഴ്ത്തുന്ന പല രീതിയിലുള്ള കളികളുണ്ട് അപ്പൊ അത് ഒന്നും നമ്മള് കളിക്കാണ്ടിരിക്കാ നല്ല കളികളൊക്കെ കളിച്ച് നമക്ക് നമ്മളെ മൈൻഡ് ഫ്രീയാക്കാൻ വേണ്ടി സാധിക്കും